ഇന്ത്യയിലുള്ളവരായാലും കേരളീയരായാലും ചായ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല എല്ലാവർക്കും ചായ ഇഷ്ടപ്പെടുന്നവരാണ് രാവിലെ ഉണരുമ്പോഴെ ചായയിൽ നിന്നാണ് എല്ലാവരും ഉണരുന്നത് തന്നെ നമ്മുടെ ചായയാണ് എല്ലാർക്കും മുഖ്യം ചിരട്ടയിൽ ചിരട്ട അത് റെഡിയാക്കി അതിൽ പാലും തേയിലയും പഞ്ചസാരയും ചേർത്ത് ചിരട്ടയിൽ ചായ ഇട്ട് കുടിക്കുന്നവരുണ്ട് പിന്നെ അല്ലാതെ ഇട്ട് കുടിക്കുന്നവരുണ്ട് പിന്നെ ഞാൻ ഇടുന്ന ചായ ആണെങ്കിൽ ഇഞ്ചിയും ഏലക്കായും എല്ലാം ചേർത്ത് ഞാൻ ചായ ഇടും ചായ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു ഇത് കുടിയാണ് എല്ലാവർക്കും ചായ ഇഷ്ടമാണ് അത് കേരളീയർക്കായാലും ഇന്ത്യക്കാർക്കായാലും ചായ കുടിക്കുന്നത് കൊണ്ട് അവർക്ക് ആർക്കായാലും ചായകുടിക്കുന്നവർക്ക് അതൊരു എനർജിയാണ് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചായ ഇട്ട് കുടിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം മാറി പോകും തൊണ്ടയിൽ ചെറിയ കുരുകുറുപ്പുണ്ടെങ്കിൽ അത് മാറും അങ്ങനെ എല്ലാത്തിനും നല്ല രീതിയിൽ എല്ലാവർക്കും ചായ ഇഷ്ട്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും ചായ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ അതുപോലെ ചായ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മലയാളികളായ നമ്മളും